എൻ്റെ ശേഖരണം നാണയങ്ങളാണ് ചെറുപ്പം മുതൽ നാണയങ്ങൾ കാണുമ്പോൾ അത് ശേഖരിച്ച് വെക്കുക എന്നുള്ളത് ഒരു ഹോബിയായിരുന്നു ചെറുപ്പകാലങ്ങളിൽ പത്ത് പൈസയുടെ വളരെ ചെറിയ കോയിൻ നുകൾ ശേഖരിക്കുകയും അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് പ്രായമായപ്പോൾ ആ നാണയങ്ങൾ ആവശ്യമില്ലാതെ വന്നപ്പോഴും അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കൂടാതെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന നാണയങ്ങളും കൈവശമുണ്ട് ഓട്ടക്കാലണ മുതൽ വ്യത്യസ്ത രാജ്യങ്ങളിലെ നാണയങ്ങളും ശേഖരിക്കാറുണ്ട് അതിന് അനുസരിച്ചുള്ള ഒരു പ്രദർശനം സംഘടിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പഴയ കാല നാണയങ്ങൾ എന്താണെന്ന് മനസ്സിൽ ആക്കാനുള്ള ഒരു അവസരം അതിൽ നിന്ന് ലഭിച്ചു ഓട്ടക്കാലണ മുതൽ പഴയകാല പൈസകൾ ഉൾപ്പെടെ ഇന്ന് നിലനിൽക്കുന്ന കോയിനുകളും അതിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു ഏകദേശം ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് നാണയങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത് അന്ന് അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത്തി അഞ്ച് പൈസ അൻപത് പൈസ ഒരു രൂപ അങ്ങനെയുള്ള കോയിനുകളാണ് ഉണ്ടായിരുന്നത് അത് വ്യത്യസ്തമായി കൊടുത്തിരിക്കുന്ന വർഷങ്ങൾക്ക് അനുസരിച്ച് അതിലെ സിമ്പലുകൾ മനസ്സിലാക്കി കൊണ്ട് ശേഖരിക്കുമായിരുന്നു പിന്നീട് കിട്ടുന്ന വ്യത്യസ്തമായ നാണയങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു സ്വഭാവോം ഉണ്ടായിരുന്നു പ്രായമായപ്പോൾ അതൊരു ഹോബി അല്ലാതെ തീരുക അല്ലാതെ ആയി തീരികയും എങ്കിലും കയ്യിലുള്ള നാണയങ്ങൾ ഇന്നും ശേഖരിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട് അത്പോലെ അന്യം നിന്നുപോയ നാണയങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ച് കൊടുക്കാനുള്ള അവസരം കിട്ടിയതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ആണെങ്കിലും വ്യത്യസ്തമായ നാണയങ്ങൾ ലഭിക്കുമ്പോൾ അത് കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു സ്വഭാവം നിലനിർത്തി പോരുന്നു തുടർന്നുള്ള കാലങ്ങളിലും നാണയങ്ങൾ ശേഖരിച്ച് വെയ്ക്കയും അത് കുട്ടികളെ കാണിച്ചു കൊടുക്കേയും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലെ നാണയങ്ങളും ശേഖരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് അവയിൽ കൊടുത്തിരിക്കുന്ന വർഷവും അതിലെ സിമ്പലുകളും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൂക്ഷമമായ പഠനത്തിലേക്കും പോകാറുണ്ട് കൂടാതെ ചെറുപ്പകാലങ്ങളിൽ കല്ലുകളുടെ ശേഖരണവും നടത്തുമായിരുന്നു പ്രധാനമായും മണൽ അരിക്കുമ്പോൾ കിട്ടുന്ന വെള്ളാരം കല്ലുകളുടെ ശേഖരണമാണ് നടത്തിയിരുന്നത് അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു ആ മിനിസക്കല്ലുകൾ കവിളുകളിൽ തലോടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ അനുഭവം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു ഇന്ന് പ്രകൃതിയിലുള്ള വ്യത്യസ്തമായ കല്ലുകൾ സൂക്ഷമമായി നിരീക്ഷിക്കാറുണ്ട് പ്രദേശം ഈ പ്രദേശങ്ങളിൽ മാർബിൾ കല്ല് ഉൾപ്പെടെ വ്യത്യസ്തമായ കല്ലകുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അവ ശേഖരണത്തിൽ ഉൾപ്പെടുന്നില്ല എങ്കിലും സൂക്ഷമമായി നിരീക്ഷണത്തിലൂടെ കല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു തൊര മനസ്സിലുണ്ട് സ്റ്റാമ്പുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ എന്നാൽ ഇന്ന് സ്റ്റാമ്പിൻ്റെ ഉപയോഗം സമൂഹത്തിൽ കുറഞ്ഞതിനാൽ ആ ശേഖരണം നിലച്ചുപോയി പഴയ ആൽബങ്ങൾ എല്ലാം നശിച്ചു പോകുകയും ചെയ്തു ഇപ്പോൾ കൂടുതലായി താല്പര്യം നാണയ ശേഖരണത്തിൽ തന്നെയാണ്